ഞങ്ങളുടെ പ്രദേശത്തെ വിദ്യാഭ്യാസത്തെ ഏറെ സ്വാധീനിച്ച നല്ല സർക്കാർ പരിപാടികൾ ഒന്ന് സ്കോളർഷിപ്പ് ആണ് പോസ്റ്റുമെട്രിക് പ്രീമിട്രിക് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പ്രത്യേകിച്ച് ഞാനൊരു കോളേജ് വിദ്യാർഥിനിയാണ് അപ്പോൾ ഹയർ എജ്യൂക്കേഷൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പിലൂടെ തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൽ കൂടുതലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ തൊണ്ണൂറ് ശതമാനം നല്ല ഉയർന്ന മാർക്ക് ഉള്ള കേരളത്തിലെ കുട്ടികൾക്കൊക്കെ തന്നെ കോളേജ് പഠനത്തോടൊപ്പം ആദ്യത്തെ വർഷം പന്ത്രണ്ടായിരം രൂപ രണ്ടാം വർഷം പതിനെട്ടായിരം രൂപ മൂന്നാം വർഷവും ഇരുപത്തിനാലായിരം രൂപ അങ്ങനെ ഓരോ വർഷവും ഇത്ര തുക കൊടുക്കുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായി അപ്പോൾ ഇത് ലഭ്യമാകുന്ന കുട്ടിക്ക് കോളേജിനെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചെലവുകളും ഇതിൽ നിന്ന് തന്നെ എടുക്കാം കവർ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് തികച്ചും വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആണെങ്കിലും എൻ്റെ വീട്ടിൽ സാമ്പത്തികമായി പിന്നോട്ടാണ് നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് അപ്പം ആ രീതിയിൽ നിന്നുകൊണ്ട് പക്ഷേ കോളേജിലെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ട് അനേകം പുസ്തകങ്ങൾ അനേകം പുസ്തകങ്ങൾ അനേകം പഠന സാമഗ്രികൾ യൂണിഫോമിനായിട്ടും മറ്റ് എൻ സി സി പോലുള്ള മറ്റ് സംഘടനകളിലേക്കും കയറുന്ന കുട്ടികൾക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനേകം ചെലവുകൾ അങ്ങനെ ഒരുപാട് ചെലവുകൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത്രയേറെ തുക ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ഇത്ര പത്ത് പത്ത് പതിനെട്ട് വയസ്സിന് മുകളിലായിട്ടും നമ്മുടെ സ്ഥലത്ത് പാർട്ട് ടൈം ജോലികളോ അങ്ങനെ പോലുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും രൂപ പോലും ഒപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് പോലും ഇത്ര രൂപ ഒപ്പിക്കേണ്ടി വരുമ്പോഴേക്കും രണ്ടും മൂന്നും നാലും കുട്ടികളുള്ള വീടുകളിൽ അത് അതി ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലായി മാറുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഒരുപാട് കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഒട്ടും തന്നെ അല്ലാതുള്ള ചെലവുകൾ എടുക്കേണ്ടി വരുന്നതായിട്ട് കാണപ്പെടുന്നില്ല പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയാണെങ്കിലും കുട്ടികൾ അനേകം കുട്ടികൾ സ്കൂൾ കുട്ടികളാണെങ്കിൽക്കൂടിയും അവർക്കും അനേകം ചിലവുകൾ സർക്കാർ സ്കൂളിൽ പഠിക്കാത്ത കുട്ടികൾക്ക് ഒരുപാട് ചെലവുകൾ മാസാമാസം അവർ അടയ്ക്കേണ്ട ട്യൂഷൻ ഫീ അവരുടെ യൂണിഫോം ഫീ സ്പോർട്സ് ഫീ ആനുവൽ ഫീ ആർട്സ് ഫീ അങ്ങനെ ഒരുപാട് ഒരുപാട് തുകകൾ സർക്കാറല്ലാത്ത സർക്കാർ ഇതര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചെലവാക്കേണ്ടി വരുന്നുണ്ട്

എന്നാൽ പക്ഷേ ഇതുപോലുള്ള സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കുമ്പോഴേക്കും അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് അപ്പം ഇതൊരു പിന്നെ അവധി ദിവസങ്ങൾ സർക്കാറിൻ്റെ ഇതിൽ കൊടുക്കുന്നതൊക്കെ ഇത് അവധി ദിവസങ്ങളിൽ കൂട്ടുകാരുമൊത്ത് ഒരുമിച്ചിരിക്കാനും പഠനത്തിൻ്റെ സ്ട്രെസ് ഒക്കെ ഇല്ലാതാക്കാനൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്